എൻ്റെ ജീവിതത്തില് ഞാന് എനിക്കൊരു തീരുമാനം ഞാനെടുത്തു എൻ്റെ ഒ എൻ്റെ ഒറ്റക്കുള്ള തീരുമാനം എൻ്റെ ഭർത്താവിനോട് പോലും ചോദിക്കാതെ ഒരു തീരുമാനം വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത തീരുമാനം ആയിരുന്നു ആരുടേയും ഉപദേശം സ്വീകരിക്കാൻ നിന്നില്ല കഷ്ട്ടപ്പെടാവുന്നതിൻ്റെ അപ്പുറം കഷ്ട്ടപ്പെട്ടിട്ടുണ്ട് ആ വീട്ടില് ഞാൻ നിന്നിട്ട് എപ്പഴും കുത്തുവാക്കും ദേ ദേഷ്യവും ഒക്കെയായിട്ട് എന്താ പറയുക ഒരടിമയെപോലെ കഷ്ട്ടപ്പെട്ട നാളുകളായിരുന്നു സത്യം പറയാല്ലോ അതൊന്നും ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല പിന്നെ കുട്ടികളുണ്ടാവാൻ നേരത്ത് ഗർഭിണിയായപ്പം പോലും ഒരു നേരം ഭക്ഷണം എടുത്ത് താരതെ ഛർദിച്ച് ഛർദിച്ച് കിടന്നപ്പം മിണ്ടാതെ കേറിപ്പോയി ഒരു എന്താ പറയുക ഒരു മനുഷ്യനല്ലാത്ത പോലെ പെരുമാറിയിട്ടുണ്ട് എനിക്കതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല മരണം വരെ എൻ്റെ കൂടെ നിൽക്കുന്ന ഓർമ്മകളാണത് അതിൽ നിന്നും നമുക്കിവിടുന്ന് പോകാം ആരുടെ ഉപദേശം ഇതാക്കിയിട്ടില്ല ഒരു തീരുമാനമായിരുന്നു എൻ്റെ എനിക്ക് ഇവിടെ പറ്റില്ല എനിക്കിവിടുന്ന് പോകണം അതെൻ്റെ തീരുമാനമായിരുന്നു അതെനിക്ക് ഇത്രയും കാലമുള്ള എൻ്റെ ജീവിതത്തിലത് തെറ്റായ തീരുമാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സ്ഥലവും കാര്യങ്ങളും ആ പിന്നെ അന്തസ്സും വീടുമൊക്കെ നോക്കിയവിടെ നിന്നിരുന്നെങ്കിൽ കണ്ണീരും പരിവട്ടവും മാത്രായിരിക്കും എനിക്ക് മുതൽ മുടക്കായിട്ട് ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല കുത്തുവാക്ക് മാത്രം ഞാനെന്തു ചെയ്തു ഒന്നും അതിനൊരു പ്രസക്തിയെ ഉണ്ടാവില്ല പക്ഷെ ഇപ്പം ഞാന് ഹാപ്പിയാണ് ലൈഫില് അന്നെടുത്ത തീരുമാനം കൊണ്ടൊരു വീടുണ്ട് സമാധാനമുണ്ട് കുടുംബം നന്നായിട്ട് പോകുന്നുണ്ട് അവരുവായിട്ടുള്ള ടെച്ചിങ് ആണെങ്കിലോ കോൺടാറ്റ് ആണെങ്കിലോ ഇപ്പഴും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മള് തല്ലി പിരിഞ്ഞ് പോകെണ്ട ഒരു സിറ്റുവേഷനായിരുന്നു ആരുടേയും ഉപദേശം നേടിയില്ല എനിക്ക് എൻറ്റേതായ തീരുമാനം കാരണം നമ്മളാണ് ജീവിക്കുന്നത് അ ഉപദേശിക്കാൻ ഒത്തിരിപ്പേരുണ്ടാവും നമുക്ക് ചുറ്റും പക്ഷെ ജീവിതമെന്ന് പറയുമ്പം ജീവിക്കുന്നത് നമ്മളാണ് ജീവി ജീവിതത്തില് ആരും അവര് പറയും അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് പക്ഷെ വ്യക്തമായ ജീവിത മുന്നോട്ട് പോകണമെങ്കിൽ അതിന് തീരുമാനെമെടുക്കാൻ നമുക്ക് കഴിയണം എ നമ്മളൊരു സ്ട്രൈറ്റ് ആയിട്ടൊരു തീരുമാനെടുത്ത് അതില് മുന്നോട്ട് പോകുവാണ് നമ്മള് ചെയ്യേണ്ടത്